മതം ആൾക്കാരെ ഒരുമിപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉത്സവങ്ങള് അങ്ങനത്തെ എന്താ പറയുക ആ മെയിൻ ആയിട്ട് നമ്മള് ഈ ഉത്സവങ്ങളിലൂടെ ആഘോഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മള് മതങ്ങൾ ആൾക്കാരെ ഒരുമിപ്പിക്കുക എന്ന് പറയുക എന്നുവച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ അമ്പലത്തിൻ്റെ പരിപാടിയാണെങ്കിലും പള്ളീൻ്റെ പരിപാടിയാണെങ്കിലും ഇപ്പ ക്രിസ്ത്യാനികളുടെ അവരുടെ പരിപാടിയാണെങ്കിലും ആഘോഷങ്ങൾ ആകുമ്പോൾ ആൾക്കാര് മെയിനായിട്ട് ഒത്തു ചേർന്ന് പോകും നമ്മള് എവിടെ നോക്കിയാലും ആ ആഘോഷ പരിപാടികൾക്ക് ആൾക്കാര്ക്ക് വരാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ആ പരിപാടികളൊക്കെയാകുമ്പോ ആൾക്കാര് എന്താ പറയുക എന്ത് പ്രശ്നം കാര്യങ്ങളുമൊക്കെയാണെങ്കിലും ആ ആഘോഷ പരിപാടികൾക്ക് ആരും ഒരു വേർതിരിഞ്ഞു നിക്കുവോ അങ്ങനെ ഒരു ഇത് ചെയ്യില്ല അവര് ഇപ്പോൾ നമ്മുടെ അമ്പലത്തിലുള്ള ഉത്സവം ആണെങ്കിലും പള്ളിയിലുള്ള ഉത്സവങ്ങൾ ആണെങ്കിലും ഏ അമ്പലത്തില് ഇപ്പോൾ പള്ളിയിൽത്തെ ഈസ്റ്ററോ മറ്റ് പെരുന്നാൾ ബലിപെരുന്നാള് അങ്ങനത്തെ കാര്യങ്ങൾ ആണെങ്കിലും ശരി എല്ലാ ഉത്സവങ്ങൾക്കും ആൾക്കാര് കൃത്യമായി പങ്കെടുക്കും ആ സമൂഹ ആ സമയത്ത് നമുക്കിപ്പോൾ എന്താ പറയുക ഒരു വേർതിരിവ് മര മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവും കാര്യങ്ങളും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ ഈ ഉത്സവം അമ്പലത്തിലെ ഉത്സവങ്ങളിലെ വെടിക്കെട്ട് അതുപോലെ ആന പൂരം ചെണ്ടമേളം അങ്ങനത്തെ കാര്യങ്ങള് വരുമ്പോൾ ആൾക്കാര് എന്താ പറയുക കൃത്യമായിട്ട് ആരൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടുത്തവും ഉണ്ടാവില്ല എല്ലാ ആൾക്കാരും അവിടെ വന്ന് അത് ആഘോഷിച്ച് കൃത്യമായി അതില് പങ്കെടുത്ത് നല്ല രീതിക്ക് അവര് എന്താ പറയുക സൗഹൃദപരമായിട്ട് പോകും അങ്ങനെയാണ് പതിവ്